വ്യത്യസ്ഥ ഋതുക്കളിൽ ഋതുക്കൾ ഞാൻ വ്യത്യസ്ഥ രീതിയിലാണ് ആസ്വദിക്കാറുള്ളത് ഇപ്പോൾ വേനൽക്കാലം വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ എന്താണ് പറയുക എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശം ഉണ്ട് അവിടെ പോയിട്ട് പൂക്കൾ പറിക്കുകയും മറ്റും ചെയ്യും ചെയ്യാറുണ്ടായിരുന്നു പിന്നെ മഞ്ഞുകാലമാണ് എന്നുണ്ടെങ്കിൽ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പപ്പട പുല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുണ്ട് ആ പപ്പട പുല്ല് കത്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ മഞ്ഞ് അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് ഒരു മോചനം കിട്ടാറുണ്ടായിരുന്നു പിന്നെ മഴക്കാലം വരുന്ന സമയത്ത് തോടുകളിലും മറ്റും പോയിട്ട് ചളി വെള്ളം തെറുപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്താറുണ്ടായിരുന്നു അ അത്തരത്തിൽ പല തരത്തിലുള്ള ഋതുക്കൾ രീതിയിലാണ് ഞാനതിനെ കണ്ടിരുന്നത് അതിലൊക്കെ ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്തിയിരുന്നു എൻ്റെ എല്ലാ ഋതുക്കളും ഞാനെൻ്റെ ഓർമയിൽ സൂക്ഷിച്ച് നടക്കുന്ന ഒന്നാണ് ഈ മഴക്കാലം വരുന്നതൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തെ എൻ്റെ വീട് ഒരു ഓല മേഞ്ഞ വീട് ആയതു കൊണ്ട് തന്നെ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഓർമയിൽ സൂക്ഷിക്കുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ആ ഒരു മഴക്കാലം തന്നെ സാധിച്ചിട്ടുണ്ട് മഴക്കാലം ആദ്യമൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് മഴ വരുന്നത് പറയുമ്പോൾ ഉള്ളിലൊരു സങ്കടമായിരുന്നു വീട് ചോർന്നൊലിക്കും എന്ന് പറയുമ്പോഴുള്ള ആ ഒരു സങ്കടം ഇപ്പോൾ വീടൊക്കെ ശരിയായി വീട് വരുമ്പോൾ വീട് വന്നതിന് ശേഷമാണ് ഞാൻ അതിനെ ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടു കൂടി ഞാൻ മഴയെ മഴയെ ആസ്വദിക്കാൻ തുടങ്ങിയത് മഴ കാണുന്നത് തന്നെ എനിക്ക് ഇപ്പോൾ വളരെ ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യമാണ് മാറിയിരിക്കുകയാണ് കൂടാതെ പഴയ കാല ഓർമകളിലേക്ക് ഇപ്പം കടന്നു ചെല്ലാനുള്ള ഒരു സ്ഥലം കൂടിയായിട്ട് എനിക്ക് ഈ ഋതുക്കളൊക്കെ തോന്നാറ്ണ്ട്